വീട്ടിൽ ജോലി ചെയ്യാനായിട്ടൊരു സ്ത്രീ വരാറുണ്ടെല്ലാ ദിവസങ്ങളിലും അവരാണ് ആഴ്ചയിലൊരു മൂന്ന് നാല് ദിവസം വീട് നന്നായി എല്ലാ ദിവസവും അടിച്ച് വാരും അതല്ലാതെ വീട് നന്നായ രീതിയിൽ വൃത്തിയാക്കി കൊണ്ടത് തറയില് വെളളവും അതിനകത്ത് ഫിനോയിലോ അതുപോലെ എന്തെങ്കിലും ക്ലീനിങ്ങ് ലിക്വിഡൊക്കെ ഒഴിച്ച് തറകൾ വൃത്തിയാക്കാറുണ്ട് അതുപോലെ തന്നെ തറ വൃത്തിയാക്കുന്നതിന് മുൻപായിട്ട് ജനൽ കമ്പികള് ജനലിൻ്റെ എല്ലാ സൈഡുകളും കതകിൻ്റെ എല്ലാ സൈഡുകളും തുടക്കാവുന്നെടുത്തെല്ലാ ഡസ്റ്റുകളൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഈ ക്ലീനിങ്ങ് ലിക്വിഡുപയോഗിച്ചുള്ള തറയുടെ ക്ലീനിങ്ങ് നടത്താറുള്ളത് പണ്ടൊക്കെ ചാണകം ഉപയോഗിച്ച് ചെയ്യുമായിരുന്നു അന്നൊക്കെ തറയെന്ന് പറയുന്നത് സിമി സിമൻറ്റ് തറയല്ല വെറും മണ്ണ് ഉള്ള തറ അടിച്ച് മെഴുകി ഇട്ടിരിക്കുന്നതാണവിടെയൊക്കെ ചാണകം ഉപയോഗിക്കുമ്പോൾ കുറേക്കൂടെ നീറ്റായിട്ട് പിന്നെയും കിടക്കും അത് തന്നെയല്ല ഇൻസെക്ട്സിനെയൊക്കെ ഉപരോധിക്കുന്നതിനുള്ളൊരു മാർഗ്ഗമായിരുന്നു ഈ ചാണകത്തിൻ്റെ മണമുള്ളപ്പോള് വേറെ ചാണകത്തിനകത്തൊത്തിരി കൃമികളുണ്ടെന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ അത് നമ്മള് വീടിനകത്തുപയോഗിച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന കൃമികളൊക്കെ കുറെയൊക്കെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കും ഇപ്പോഴെല്ലവരുടെയും മൊസയ്ക്കും ഗ്രാനൈറ്റുമൊക്കെ ആയത് കൊണ്ട് ചാണകത്തിൻ്റെ ആ ഒരു കാര്യത്തില് ചാണകം ചവിട്ടുന്നത് പോലും ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കാരണം പശുവിനെ വളർത്തുന്നവര് പോലും വളരെ ചുരുക്കമാണിപ്പോൾ അതൊക്കെ എല്ലാ ഫാമുകളുമൊക്കെ ആയിട്ട് മാറിയിരിക്കയാണ് അല്ലതെ വീടുകളിലീ ചാണകമുപയോഗിക്കുന്നതിപ്പോള് ഒരു കാരണവശാലും ഒന്നിനും ഉപയോഗിക്കുന്നില്ല പറമ്പിലെങ്ങാനും എന്തെങ്കിലുമൊക്കെ വളത്തിനായിട്ടുപയോഗിക്കുന്നുണ്ടെങ്കിലേ ഉള്ളു അല്ലാതെ വീടുകളില് ചാണകമുപയോഗിക്കുന്ന ഏർപ്പാടുകള് പണ്ടേ നിന്ന് പോയി വീട് തൂത്തുവാരുകയും തുടയ്ക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്നു ചോദിച്ചാലിപ്പോള് എല്ലാ വീടുകളിലൊക്കെ അവര് വീട്ടുകളിലെ ആൾക്കാര് തന്നെ ആയിരിക്കുമല്ലോ വീടോരോ ദിവസം തൂത്ത് വാരിയെന്നിരിക്കും വേലക്കാരുള്ളവരാണെങ്കിൽ അവരെല്ലാ ദിവസവും തൂത്ത് വാരും ആഴ്ചയിൽ രണ്ടും മൂന്നും ദിവസങ്ങൾ നല്ല രീതിയിൽ ഏതെങ്കിലും ക്ലീനിങ്ങ് ലിക്വിഡൊക്കെ ഉപയോഗിച്ച് തറയും എല്ലാടൊമൊക്കെ തുടച്ച് വൃത്തിയാക്കുക പിന്നത് വൈപ്പറുപയോഗിച്ച് അതെല്ലാം വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്ക് മെഷീനുകളൊക്കെയും ഇപ്പോള് ധാരാളം ഉള്ളതുകൊണ്ട് ആ രീതിയിലാണിപ്പോളെല്ലാവരും തൂക്കുകയും വാരുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലാതെ മാനുവലായിട്ടിപ്പോള് ചെയ്യുന്നതൊക്കെ വളരെ ചുരുക്കമുള്ള വീടുകളിലേ ഉള്ളു ചെയ്യുന്നുണ്ട് എല്ലാവരും ഓരോ ദിവസവും വീട് വൃത്തിയാക്കുക എന്നുള്ളതൊരു മസ്റ്റാണ് കാരണം ചുക്കിലിയോ എന്തെങ്കിലുമൊക്കെ ഇൻസെക്ടസൊക്കെ വരാതിരിക്കും എല്ലാ ദിവസവും തൂക്കുകയും വാരുകയും കുറച്ച് ക്ലീനിങ്ങ് ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച് തറയൊക്കെ വൃത്തിയാക്കുകയും ചെയ്താൽ ഈ ഇൻസെക്ടസിനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഇൻസെക്ടസൊക്കെ വന്ന് കഴിയുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ രോഗാണുക്കളെയും കൊണ്ടൊക്കെ ആയിരിക്കൂം ഇതൊക്കെ വരുന്നത് നമുക്കത് ധാരാ എന്തങ്കിലുമൊക്കെ അസുഖങ്ങള് വരാനുള്ള സാധ്യതകളും കൂടുതലാണപ്പോള് വീട് തുടയ്ക്കുക വൃത്തിയാക്കുക എന്നൊള്ളതൊരു മസ്റ്റാണ് അപ്പോള് എല്ലാ ദിവസവും വീട് തൂത്ത് വാരുക എന്നുള്ളത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് തുടയ്ക്കുന്നത് മൂന്നും നാലും ദിവസം കൂടുമ്പോള് ചെയ്താലും മതിയാവും പക്ഷേ അതോക്കെ ചെയ്യുന്നതിപ്പോള് വീട്ടുകാരെ എല്ലാ വീടുകളിലുമൊക്കെയിപ്പോള് ആരെങ്കിലുമൊക്കെ വേറെ ജോലിക്കായിട്ട് വരുന്നവരുണ്ട് അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ് പതിവ് ചാണകം ഉപയോഗിക്കുന്ന ഏർപ്പാടേ ഇല്ല